ഒന്നാമത്തേത് പതിനെട്ട് മൂന്ന് രണ്ടായിരം രണ്ടാമത്തേത് പതിമൂന്ന് നാല് രണ്ടായിരത്തിപ്പത്തൊൻപത് മൂന്നാമത്തേത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാലമത്തേത് പന്ത്രണ്ട് നാല് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി ഏഴ് അഞ്ചാമത്തേത് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി പതിനെട്ട്